എൻ്റെ പ്രദേശത്ത് ആ പരമ്പരാഗതമായ കളികളെന്ന് പറയുമ്പോൾ കുട്ടിയും കോലും കളിയുണ്ട് ഒളിച്ചു കളിയുണ്ട് വടംവലിയുണ്ട് ഇതൊക്കെ എൻ്റെ എൻ്റെ നാട്ടിലെ പരമ്പരാഗതമായ കളികളാണ് ഇതിൽ കുട്ടിയും കോലും കളിക്കുന്ന എങ്ങനെയെന്ന് വച്ചാൽ നമ്മളൊരു തടിയുടെ ചെറിയ പീസെടുക്കും എന്നിട്ട് വലിയൊരു തടിയുടെ പീസെടുക്കും എന്നിട്ട് ഈ കൊച്ചു തടീനെടുത്ത് നമ്മൾ കിണ്ടി എറിയും എന്നിട്ട് നമ്മളതിനെ അടിച്ചടിച്ച് അങ്ങ് കളിച്ചങ്ങ് പോവും കുട്ടിയും കോലും കളി ഒളിച്ചു കളിയെന്ന് പറയുന്നത് ഒരാൾ ഒന്ന് മുതൽ പത്തു വരെ എണ്ണും അപ്പോൾ ആ സമയം കൊണ്ട് കൂടെ നിൽക്കുന്ന ബാക്കിയുള്ളവരെല്ലാം എല്ലാം ഒളിക്കും ഇവർ കണ്ടുപിടിക്കും ഇതാണ് ഒളിച്ചു കളി വടംവലിയെന്ന് പറഞ്ഞ കളി ഒരു വലിയ കയറെടുക്കും രണ്ടറ്റത്ത് രണ്ട് പത്ത് പത്ത് പേര് ചെന്നു നിൽക്കും ചിലപ്പം അത് എട്ടു പേരാവാം ആറു പേരാവാം ചെന്ന് നിൽക്കും ഇതിൽ ആ ഏറ്റവും ശക്തി ശക്തി പരീക്ഷണമാണ് ഈ കളിയെന്ന് പറയുമ്പോൾ ഏത് വിഭാഗത്തിലുള്ള ആൾക്കാരാണ് ഈ കയർ വലിച്ച് ആ ഓപ്പോസിറ്റുള്ള ആൾക്കാരെ ഇങ്ങോട്ട് കയറ്റുന്നത് അതിലൂടെ ഈ വടംവലി തീരും ഇതാണ് ഞങ്ങളുടെ നാട്ടിലെ പരമ്പരാഗതമായ കളികൾ